നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇതുപോലത്തെ പരുപാടികൾ വരുന്നുണ്ട് ഇപ്പോൾ ഉത്സവങ്ങളായാലും അതുപോലെത്തന്നെ ഓരോ പരുപാടികളായാലും നമ്മുടെ നൃത്തം നൃത്തം അതുപോലെ കോമഡി അങ്ങനെയുള്ള പരുപാടികളെല്ലാം നമ്മൾ സ്റ്റേജായിട്ട് കണ്ടക്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഒരുപാട് നൃത്ത് ഒരുപാട് എന്താ പറയുക കഴിവുള്ള കുട്ടികൾ ഡാന്സിനായാലും പാട്ടിനായാലും അതുപോലെത്തന്നെ ഓരോ പരുപാടികളവതരിപ്പിക്കാനൊ ക്കെ വരാറുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക അതൊക്കെ കാണാന് പോകാറുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മുടെ അതൊരു അവര്ക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം തന്നെയാണ് അവസരങ്ങൾ തന്നെയാണ് ഉത്സവങ്ങളിലൊക്കെ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് കാണാറുണ്ട് ഇപ്പോൾ നമ്മുടെ അമ്പലത്തില് ഉത്സവം അതുപോലെത്തന്നെ പള്ളിയില് പരുപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പരുപാടി കഴിഞ്ഞാൽ സ്റ്റേജ് ഷോകളുണ്ടാകും അതായത് നൃത്തം നാടകം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരുപാടികൾ ഉണ്ടാകാറുണ്ട്